അഞ്ച് നവംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി അഞ്ച് പന്ത്രണ്ട് നവംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി അഞ്ച് ഇരുപത്തി ആറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപത് പതിനഞ്ച് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി ഏഴ് രണ്ട് ഒക്ടോബർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത്